ഞാൻ കുട്ടനാട് പ്രദേശം ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് പ്രദേശമായ കൈനേരി എന്ന സ്ഥലത്താണ് ജനിച്ചത് ഇവിടുത്തെ സംസ്കാരം നിലവിൽ നേരിട്ട് ഞാൻ കൊച്ചിലെ തൊട്ട് കണ്ടുവളർന്നത് അത് എന്തെങ്കിലും ഒരൂ ചടങ്ങുകളോ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ടുള്ള എന്തെങ്കിലുമായിട്ടുള്ള ജനങ്ങൾ കൂടുന്നതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിട്ടുള്ള എന്തെങ്കിലും ചടങ്ങുകളുണ്ടെങ്കിൽ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെന്നുള്ളതായിരുന്നു ഒരുമിച്ച് കൂടി ജനങ്ങൾ സഹ അയൽവക്കത്തിലുള്ള പത്തിരുപത് വീട് അടുപ്പിച്ചുള്ള വീട്ടുകാരെല്ലാവരും കൂടി വന്ന് എന്ത് ചടങ്ങിനായാലും രണ്ട് ദിവസം മുമ്പേ വീടുകളിൽ വന്ന് വീട് ഓരോ ജോലി എടുത്ത് പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു രീതി ഇത് ജാതിഭേതമന്യേ എന്ത് കൾച്ചറൽ പ്രോഗ്രാംസുണ്ടെങ്കിലും പ്രാദേശികമായിട്ട് ജനങ്ങൾ വളരെ ഹാപ്പിയായിരുന്നു ഇപ്പോളത്തെ തലമുറയിൽ ഇത് മാറി ഓരോ ഇതിലും കേറ്റ്റിംഗ് രീതികളിലാണ് കണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ സ്വയ ത്തിൽ ലാഭേച്ചയിൽ സംസ്കാര വെല്ലുവിളികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഒരു വീട്ടിൽ എന്തെങ്കിലുമൊരു ചടങ്ങ് നമ്മൾ പറയുകയാണെങ്കിൽ കല്യാണം അങ്ങനെ എന്തെങ്കിലും ഒരു മരിപ്പ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ സാമ്പത്തികമായി കരുതി ബാങ്കുകളിൽ കരുതി വെച്ചിട്ട് അത് കേറ്റ്റിംഗ് എന്ന രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് അതോ ഒരു കുടുംബത്തിനും സമയലാഭം ആണ് ഇപ്പോഴത്തെ കൾച്ചറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് പഴയ തലമുറയിയെന്ന് പറയുന്നത് ജനങ്ങളുടെ ആ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു രണ്ടുമൂന്നു ദിവസത്തെ ഓരോ വീടുകളിൽ വന്ന് സഹകരിക്കുകയും എല്ലാവരുമായിട്ട് ജോയിൻ ചെയ്ത് എല്ലാവരും വീട്ടിൽ പ്രാർത്ഥനകളും എല്ലാ രീതികളും ഭയങ്കര ആഘോഷമായിരുന്നു എല്ലാം പരിപാടി കഴിയുമ്പോഴും വളരെ സന്തോഷം സന്തോഷമായിരുന്നു ഓരോ പരിപാടികൾ തീരുമ്പോഴും ഇപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ട് ഉള്ളവരുടെ പരിപാടികൾ വളരെ എളുപ്പത്തിൽ കൾച്ചറൽ ആയിട്ടൊന്നും നടക്കുന്നു പോലുമില്ല എല്ലാം എളുപ്പത്തിലങ്ങ് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ പൈതൃകം കാത്തുസൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഈ ഇപ്പം ജാതിഭേദമന്യേ ഉള്ള ഓരോ ഇതിലും ജനങ്ങൾ വീട്ട് വീടുകളിൽ തന്നെ ഇരുന്ന് കൾച്ചറൽ സാംസ്കാര സംസ്കാരരീതികളെ നശിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും സാധിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനുവേണ്ടി സംസ്കാര പൈതൃകത്തിന് വേണ്ടി ഗവൺമെന്റ് ഓരോരോ പ്രോജക്ടുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഫോളോ അപ്പ് ചെയ്യാത്തതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ വിശുദ്ധമായിട്ടുള്ള പല പല കൾച്ചറൽ പ്രോഗ്രാംസുകളും എക്സാമ്പിളെന്നു പറയുന്നത് കഥകളി അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ഇപ്പോൾ കാശിനുവേണ്ടി പടിച്ചെടുത്ത് അത് എന്തൊക്കെയോ ചെയ്യുന്ന രീതിലേയ്ക്കാണ് ഇപ്പോൾ പഠനം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ